ആ അതെ അതെ വളക്കടയാണ് ആരാണ് ആരാ ആ

അത് ശെരി എത്രയാ എത്ര സെൻറ്റ് കാണും അത് അത് ശരി ആ ആ ആ ഓ നെൽപ്പാടവാ നെൽപ്പാടവാ അല്ലേ ഓക്കെ ഓക്കെ മ്മ് മ്മ് മ്മ്

യൂറിയ യൂറിയായുടെ ഒക്കെ വളവോ ആ എല്ലാം ഇരിപ്പുണ്ട് മ്മ് മ്മ് എ മ്മ് ആ എത്ര വേണ്ടി വരും ആ ശരി ശരി ആ അത് നല്ലൊരു ആ ഓക്കെ ഓക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ വന്നാൽ മതി വണ്ടിയുവായിട്ടേ മ്മ് വന്നാൽ മതി ക്യാഷ് ഒക്കെ ആ ആ ഉണ്ട് ഏത് സമയത്താണ് ഏത് സമയം അത് ഓപ്പണാ പന്ത്രണ്ട് മണിക്ക് പകൽ മുഴുവൻ ഓപ്പൺ ആണേ ആ പന്ത്രണ്ട് ഒരു എട്ട് മണി വരെയുണ്ട് എട്ട് മണി വരെ കട ഓപ്പൺ ആണേ മ്മ് മ്മ് രാവിലെ രാവിലെ ഒരു ഒമ്പത് ആകാതെ തുറക്കത്തില്ല ഒമ്പത് തൊട്ട് രാത്രി എട്ട് മണി വരെ ഉണ്ട് ആ ആ ഏത് സമയം വന്നാലും എടുക്കാം വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് വന്നാൽ മതി കേട്ടോ ആ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തേ വരാവുള്ളേ വളം ആവുമ്പളേ ഈ മഴക്കാലം അല്ലേ മഴക്കാലം ആവുമ്പം വളം നനയാണ്ട് ഇരിക്കണം ടാർപാൾ ഒക്കെ കൊണ്ട് വരണം കേട്ടോ ഷീറ്റ് ഒക്കെ കൊണ്ട് വരണം കേട്ടോ ആ മ്മ് പിന്നെ

തുരുത്തില്ലേ ആ അതിൻ്റെ ജംഗ്ഷൻ പറയുകയാണെങ്കിൽ തുരുത്തി നമ്മുടെ പുന്നമൂട് ജംഗ്ഷൻ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ പുന്നമൂട് ജംഗ്ഷനിലെ ആ ഓട്ടോ സ്റ്റാൻഡ് ഇല്ലേ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ ഒക്കെ കടയാ അപ്പുറത്തെ കടയാ അവിടെ ഏത് ഏത് വളം വേണമെങ്കിലും കിട്ടും വെജിറ്റബിൾ ആണെങ്കിലും ആ രണ്ട് ഓട്ടോ സ്റ്റാൻഡ് ആ ആ ഇതേതാ ആൽ ആലിൻ്റെ അവിടെ ആൽ ആൽ നിൽക്കുന്നില്ലേ ആ അവിടുന്ന് ക്രോസ് ചെയ്യണം അവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറം കടക്കണാ ആ മൂലക്ക് കിടക്കുന്ന കടയാ ആ മൂലക്ക് കാണുന്ന കടയാ അവിടെ ഏതാ ഏത് രീതിയിലുള്ള വളം വേണേ കിട്ടും വെജിറ്റബിൾൻ്റെ ആണേലും മ്മ് ആ പൊട്ടാഷ്യം യൂറിയ എല്ലാം കിട്ടും ആ ആ എടുത്ത് വെച്ചേക്കാം ഏകദേശം ആ കുറച്ച് രൂപയാവുവേ രണ്ട് ചാക്കാവുമ്പം കുറച്ച് ആ ഏഹ് ഏകദേശം ഒരു ആ ആയിരത്തഞ്ഞൂറ് രൂപയോളം ആവും ആ ഓക്കെ ആ വേണമെങ്കിൽ ആ ഗൂഗിൾ ഗൂഗിൾ പേ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ആ അത്യാവശ്യം അങ്ങനെ കൊടുക്കുന്നുണ്ട് മ്മ് മ്മ് മ്മ് മ്മ്

ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ എടുത്ത് വെച്ചേക്കാം എടുത്ത് വെച്ചേക്കാം പേര് എന്തായിരുന്നു പേര് എന്തായിരുന്നു ആ അ ഹ ആ ഓ ഓക്കെ ഓക്കെ ആ എങ്കിൽ ആ എങ്കിൽ